ഹലോ മാനന്തവാടി ഗവൺമെൻ്റ് ഹോസ്പിറ്റൽ ആരാണ് സംസാരിക്കുന്നത്

ആണോ ആ ആ എത്ര ദിവസം ആയി തുടങ്ങിയിട്ട് ഒരാഴ്ച ആയോ ആണോ എന്നിട്ട് എന്താണ് ഇത്ര ദിവസം വൈകിയത് ആ എന്നിട്ട് ടാബ്ലറ്റ് കഴിച്ചിരുന്നോ ആണോ അപ്പോൾ എത്ര ദിവസം ഒരു ആഴ്ച തന്നെ കഴിച്ചോ ആണോ തലവേദനയും പിന്നെ എന്താണ് പനിയും തലകറക്കം ആണോ ആ നിങ്ങൾ പ്രഷറോ ഷുഗറോ അങ്ങനെ വല്ലതും ഉണ്ടോ നോർമൽ ആണ് എന്നിട്ടും കുറവില്ല അല്ലേ മഴ കൊണ്ടിരുന്നോ ഇല്ല പിന്നെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ വീട്ടിൽ അച്ഛൻ അമ്മയ്ക്കോ ആണോ എന്നാൽ ഇത് വൈറൽ ഫീവർ ആയിരിക്കും വൈറൽ ഫീവർ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ അങ്ങനെ കുറയുന്നില്ല പിന്നെ ഒന്ന് രണ്ട് ആഴ്ച എടുക്കും തൊണ്ടവേദന ഉണ്ടോ

ആ ആ നന്നായിട്ട് ആവി പിടിക്കണം ആവി പിടിച്ചാൽ ഈ പ ഈ പനി അങ്ങനെ മാറുന്നുള്ളൂ വൈറൽ ഫീവർ അല്ലേ തൊണ്ടയിലൊക്കെ വൈറസ് ഉണ്ടാവും പിന്നെ അതുപോലെ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം വെള്ളം കുടിക്കണം നല്ല റെസ്റ്റും എടുക്കണം എന്നാലേ മേല് വേദന ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അല്ലേ ആ എന്നാൽ പിന്നെ നന്നായിട്ട് റസ്റ്റ് എടുക്കണം പിന്നെ ടാബ്ലറ്റ് കഴിച്ചിട്ട് മാറ്റം ഇല്ലെന്ന് അല്ലേ പറഞ്ഞത് നാളെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം ഒന്നുകൂടെ കാണിച്ചിട്ട് പിന്നെ അതുപോലെ നാളെ ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ആ രാവിലെ ബുക്ക് ചെയ്തിട്ട് വന്നോ അല്ലെങ്കിൽ പിന്നെ നാളെ ഒഴിവ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ബുക്ക് ചെയ്തിട്ട് വരേണ്ടി വരും ആ ആ പിന്നെ വേറെ എ വേറെ ഒന്നുമില്ലല്ലോ നന്നായിട്ട് റസ്റ്റ് എടുക്കണം നല്ല ആവി ഇടയ്ക്ക് ഇടയ്ക്ക് പിടിച്ചോ ആവി പിടിച്ചാലേ ഇത് കുറയുള്ളൂ പിന്നെ അതുപോലെ മരുന്ന് കുടിക്കുന്നതിന് അനുസരിച്ച് റസ്റ്റ് എടുക്കണം അതായിരിക്കും നിങ്ങളെ കുറയാത്തത് ഉം റസ്റ്റ് എടുത്തിരുന്നോ ആ ആ ആ റസ്റ്റ് എടുക്കണം ഇതിന് നന്നായിട്ട് റസ്റ്റ് എടുക്കണം നന്നായിട്ട് വെള്ളം കുടിച്ചോ ആവിയും പിടിച്ചോ അതല്ലാതെ വേറെ ഒരു മാർഗം ഒന്നും ഇല്ല ഇതിന് പിന്നെ ടാബ്ലറ്റ് കഴിക്കണം നാളെ ഒന്ന് വന്നോ എന്നാൽ ഊ ഓക്കേ